സ്വച്ഛ് ഭാരത് നമ്മുടെ കേന്ദ്ര സർക്കാർ കൊണ്ടു വന്നിട്ട് കൊണ്ട് വന്നിട്ടുള്ളൊരു പദ്ധതിയാണ് നമ്മുടെ നാടും വീടും ഒക്കെ നല്ല രീതിയിൽ ശുചിത്വത്തോടു കൂടി കൊണ്ട് പോകാനുള്ള വളരെ അധികം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഈ ഒരു സ്വച്ഛ് ഭാരതിലൂടെ നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ആ നമ്മുടെ പഞ്ചായത്തിലും മുൻസിപ്പാലിറ്റികളിലും എല്ലാം തന്നെ ഏഹ് ഇപ്പോൾ മാസം തോറും ആളുകൾ അവിടെ നിന്നാളുകൾ വന്ന് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ ആ ഹരിത കർമ്മസേന വന്ന് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഭക്ഷണ അവശിഷ്ടങ്ങളുടെ വേസ്റ്റുകൾ അതുപോലെ തന്നെ പഴയ പഴയ തുണിത്തരങ്ങൾ അതൊക്കെ വേറെ വേറെ രീതിയിൽ കൊണ്ടു പോയി അവൾ അതവർ നമ്മുടെ നല്ല രീതിയിൽ നമ്മുടെ വീടും നാടും വൃത്തിയാക്കാൻ അവർ വളരെയധികം സഹായിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ നമ്മുടെ പഞ്ചായത്തിലെ പഞ്ചായത്തിലെയും അതായത് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നു വരുന്ന ആളുകൾക്കാണെങ്കിലും അവരുടെ എല്ലാ രീതിയിലുള്ള ശുചിത്വ പരിപാടികൾക്കും ശുചിത്വത്തിനുള്ള എല്ലാ കാര്യങ്ങളും സ്വച്ഛ് ഭാരത് നമുക്കൊരുക്കി തരുന്നുണ്ട് മാത്രമല്ല ഒരു ശുചിത്വ യജ്ഞത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എനിക്കു പറയാനുള്ളത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പരിസ്ഥിതി ദിന ത്തോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ വൃത്തിയാക്കൽ പരിപാടികളിലും ഞാൻ പങ്കെടുക്കാറുണ്ട് അത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്